അതേല്ലോ ആരായിരുന്നു വിളിക്കുന്നത് അ എവിടെ

ആ ആ അ ഏത് ലേക്ക് വേണ്ടി ആയിരുന്നു

ആണോ ബോയ്സ് ഓർ ഗേൾസ് ബോയ്സ് ഓർ ഗേൾസ് അ ഓക്കേ ഓക്കേ ഇവർ രണ്ടുപേരും എവിടെയാണ് പഠിച്ചത് ഓക്കേ ഓക്കേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണോ പഠിച്ചത് അ ഓക്കേ അ ഓക്കേ അതെയതെ ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ് ഇവിടെ മലയാളം മീഡിയം ഇല്ല ടീച്ചേർസ് എല്ലാവരും തന്നെയുണ്ട് ഒരു സബ്ജക്ടിന് രണ്ടുപേർ വെച്ചാണ് ഉള്ളത് അതുപോലെതന്നെ രാവിലെ നയൻ തേർട്ടീക്ക് ക്ലാസ് തുടങ്ങും നോർമൽ സ്കൂൾ പോലെയല്ല നയൻ തേർട്ടിക്ക് ക്ളാസ് തുടങ്ങും ത്രീ തേർട്ടിക്ക് ആണ് കഴിയുന്നത് അതുപോലെതന്നെ പരെന്റ്സ് കൊണ്ട് വിടാൻ ആണെങ്കിൽ കൊണ്ട് വിടാം അതുപോലെ വേറെ ബസ്സസ്സിലും കാര്യങ്ങളിലും ഒന്നും കൊണ്ട് വിടരുത് എന്താന്ന് വെച്ചാൽ ഇപ്പഴത്തെ ഇവിടെ ഇഷ്യുസും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് അതുപോലെതന്നെ നമുക്ക് നമ്മുടെ സ്കൂൾ ബസ് അവൈലബിൾ ആണ് നമുക്ക് നമ്മുടെ കുട്ടികളെ സ്കൂൾ ബസ്സിൽ തന്നെ വിട്ടയക്കാം എല്ലാ പ്ലേസിലോട്ടും സ്കൂൾ ബസ് ഉണ്ട് സ്കൂൾ ബസ്സിന് വേറെ ഫീസ് ആണ് അല്ലാതെ നിങ്ങൾ സ്കൂളിലോട്ട് തരുന്ന ഫീസിൽ നിന്ന് എടുക്കത്തില്ല സ്കൂൾ ബസിന് ഒരു മന്ത് വന്നിട്ട് ഫോർ ഹൺഡ്രഡ് ആണ് വരുന്നത് പിന്നെ നിങ്ങൾ എന്നായിരുന്നു ചേർക്കാൻ വരുന്നത് ആണോ ഓക്കേ ഉണ്ടാകും നാല് മണി അതെ ത്രീ തേർട്ടി വരെയൊക്കെ ഉണ്ടാവുകയുള്ളു നാലുമണി ആ സമയത്ത് തന്നെ കുറച്ച് നേരത്തെ വന്നേക്ക് ഇപ്പോൾ അഡ്മിഷൻ ടൈം ആയതുകൊണ്ട് എല്ലാവരും വരുന്നുണ്ട് തിരക്കായിരിക്കും കുറച്ച് നേരത്തെ വന്നാൽ നന്നായിരിക്കും അഡ്മിഷൻ ഫീസ് രണ്ടായിരം ആണ് വരുന്നത് ഫീസ് മന്തിലി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ആണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആയതുകൊണ്ടാണ് അത്രയും പിന്നെ അല്ലാതെ വേറെ ഡൊണേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ വന്നിട്ട് നേരിട്ട് പറയുന്നതാണ് പിന്നെ ഈ ടീസിയും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ മറക്കണ്ട കുട്ടിയുടെ ആധാർ ഫോമും ഒന്നും എടുക്കാൻ മറക്കണ്ട ലഞ്ച് ടൈം ഒക്കെ അത് സാധാ ടൈം പോലെ ഒരു മണിക്ക് വിടും ഒന്നര വരെ അര മണിക്കൂറെ ഉള്ളു

അ ഉണ്ട് ഉണ്ട് ഇംഗ്ലീഷ് മാത്രമാണ് ഇവിടെ സംസാരിക്കുള്ളൂ ഒന്നാമത് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആണല്ലോ പിന്നെ ഭാവിയിലേക്ക് അവർക്ക് തന്നെ ഉപകാരം ആകുകയുള്ളു അതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ സംസാരിക്കുകയുള്ളൂ മലയാളം എന്ന ലാംഗ്വേജ് ഇവിടെ സബ്ജക്ടുമില്ല അല്ലാതെ സംസാരിക്കുന്നുമില്ല മലയാളത്തിന് പകരം ഇവിടെ സാൻസ്ക്രീറ്റും ഉറുദുവും ഉണ്ട് പിന്നെ ഓ എസ് ഓഫ് കോഴ്സ് ഇഷ്ട്ടമുള്ളത് ചൂസ് ചെയ്യാം പിന്നെ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് ഒന്ന് എടുക്കണേ ഓക്കേ ഒന്ന് വിളിച്ചിട്ട് വരണേ അ ഓക്കേ താങ്ക്യൂ